എലി പാറ്റ അങ്ങനെയുള്ള ജീവികളെ നമ്മള് കൂടുതലായിട്ടും കാണുവാൻ സാധിക്കുന്നത് അടുക്കളകളിലും ശുചിമുറികളിലും ഒക്കെയാണ് അവിടെയൊക്കെ ഒരുപാട് വൃത്തീഹീനമായി കിടക്കുന്നതുകൊണ്ടാണ് ഇവയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇവയെല്ലാം ഒഴിവാക്കുവാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെതന്നെ എലിയെ നശിപ്പിക്കൂ നശിപ്പിക്കുവാനും നമുക്ക് സാധിക്കും അതിന് ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുപോലെതന്നെ ഇവ വീടുകളിനുള്ളിലേക്ക് പ്രവേശിക്കുകയും വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം കഴിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ എലി പാറ്റാ ഇതു പോലെയുള്ള കാര്യങ്ങൾ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ വീടിനുള്ളില് ഉള്ളിലിരിക്കുന്ന തുണികൾ അതുപോലെതന്നെ തടിക്കഷ്ണങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എലിയും പാറ്റയൊക്കെ ക കഴിക്കുന്നതു സ്ഥിരമായി വന്ന് കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ടുതന്നെ ഇവയെ ഒഴിവാക്കേണ്ടത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു കടമ തന്നെയാണ് അതിനുവേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇവയെല്ലാം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നാത് സിങ്ക് അതുപോലെതന്നെ ഭക്ഷണം ഇടുന്നത് ആ മോശം ഡ്രൈനേജ് പിച്ച് അല്ലെങ്കിൽ പൈപ്പുകൾ ചോർച്ച വിള്ളലുകൾ എന്നിവ മറ്റു വഴികളിലൂടെ പാറ്റകളെ അനുവദിക്കുന്നുണ്ട് ഏങ്കിൽ അതെ അവ ചെയ്യും അവിടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുക തന്നെയാണ് അവ ചെയ്യുകയും ചെയ്യുന്നത് അഴുക്കുചാലുകളിൽ ഒന്നിലധീകം ചുട്ടുതിളയ്ക്കുന്ന വെള്ളം വലിച്ചെറിയുന്നതിലൂടെയ്യ വിനാഗിരിയല്ലെങ്കിൽ ബോറിക് ആസിഡ് പോലെയുള്ള ആസിഡുപയോഗിച്ച് നിങ്ങൾക്ക് ഭക്ഷണത്തിൻറ്റേയും ജൈവ വസ്തുക്കളുടെയും പൈപ്പുകൾ വൃത്തിയാക്കുവാൻ സാധിക്കും കുറച്ച് സമയത്തേക്ക് പൈപ്പുകൾ വൃത്തിയാക്കുന്ന വ്യക്തികളും സൂഷിക്കുകയും ശ്രദ്ധിച്ച് ഇവയെല്ലാം ചെയ്യുകയും ചെയ്യണം അവ ശ്രദ്ധ യേക്ക്ന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റു പ്രശ്നങ്ങളോ പൈപ്പുകളിലേക്കുള്ള പ്രവേശനം പോയിൻറ്റുകളും ഉണ്ടായേക്കാം അതുപോലെതന്നെ ഇവ വൃത്തിയാക്കുന്ന സമയങ്ങ ളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെയും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കുവാൻ ഏറ്റവും കൂടുതല് നമുക്ക് സഹായിക്കും ചൂടുവെള്ളം ഒഴിക്കുന്നത് ഏറ്റവും വളരെയധികം നല്ലയൊരു കാര്യമാണ് അതു അതുമൂലം ഇവയുടെ ശല്യം കുറെയൊക്കെ നമുക്ക് തടയാനായിട്ടു സാധിക്കും അതുപോലെതന്നെ എലി നമുക്ക് വച്ചിരിക്കുന്ന പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കടിച്ച് നശിപ്പിക്കുകയും അതുപോലെതന്നെ നമ്മുടെ വയറ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അത് കടിച്ചു നശിപ്പിക്കുന്നത് നമുക്ക് കൂടുതലും കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇവയൊക്കെ നശിപ്പിക്കേണ്ടത് വളരെ വളരെ വളരെ നല്ലെയൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത് അത്കൊണ്ട് പാറ്റ പാറ്റയെന്നു പറയുന്നത് നമ്മള് അടുക്കളയിലൊക്കെ അടച്ചു വച്ചിരിക്കുന്ന ആഹാരങ്ങളിലും അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ ഇതു കയറി ഇരിക്കുകയും നമ്മളറിയാതെ ഇത് അതിൽ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യും അതുപോലെതന്നെ ചുമ്മാ കമിഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്കും പാറ്റകള് പ്രവേശിക്കുകയും ആ പാത്രം മൊത്തം നശിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇവയെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവയുടെ ശല്യം തടയുവാൻ സാധിക്കണം അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കാം അതുപോലെതന്നെ ഇതിന് ചോക്കുണ്ട് അതു കൊടുക്കാം കേക്ക് കൊടുത്ത് അതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനെയൊക്കെ കൊല്ലുവാനായിട്ടുള്ള കേക്കുകൾ ഇപ്പോള് കടകളിലൊക്കെ സർവ്വ സാധാരണമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുപോലെതന്നെ തിളച്ച വെള്ളം ഇവയെ കാണുന്നിടത്ത് നമുക്കു തിളച്ച വെള്ളം ഒഴിച്ചാലും ഇത് ആ ചൂടില് നശിച്ചുപോവുന്നതാണ് അതുപോലെതന്നെ അടുക്കളകളും ശുചിമുറികളും ഏറ്റവും നല്ല രീതിയില് തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ഇതുപോലെയുള്ള വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലും ആണ് കൂടുതലായിട്ടും എലിയും പാറ്റ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രാണികളും ഒക്കെ കയറുന്നതും അവിടെയുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നത് അതുപോലെതന്നെ താമസമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കയറി ഇത് നശിപ്പിക്കുന്നു തോട്ടങ്ങളില് കയറി എലി തോട്ടങ്ങൾലും ഒക്കെ കയറി ചീനി പോലുള്ള സാധനങ്ങളൊക്കെ മനുഷ്യർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയില് നശിപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് എലിക്കെണികളൊക്കെ വയ്ക്കുവാനായിട്ട് സാധിക്കും എലിക്കെണികളും പാറ്റയ്ക്കു പാറ്റയെ നശിപ്പിക്കാനുള്ള സാധനങ്ങളും ഒക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ ച്ച് നമുക്ക് ഇവയെയൊക്കെ കൂടുതലും നിയന്ത്രിച്ച് ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അടുക്കളകളും ശുചിമുറികളും ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്